രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്താറ് പിന്നെ പത്ത് പത്ത് രണ്ടായിരത്തി പത്ത്